നാനോ ടെക്നോളജി ഗ്രീൻ ടെക്നോളജി തുടങ്ങിയ പദ്ധതികളാണ് ഉപയോഗിക്കുന്നത് ബഡ് ചെയ്ത തൈകളും കൂടുതൽ ഉൽപാദനക്ഷമത ഉറപ്പുവരുത്തുന്ന വിത്തുകളോ കൃഷി രീതികളോ ഒക്കെ അവലംബിക്കാറുണ്ട് അതുപോലെ പരമ്പരാഗതമായി കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിലും ഇതുവരെ ചെയ്ത കൃഷിരീതികളുടെ അനുഭവത്തിൽ നിന്നുമാണ് തൈകൾ എപ്പോൾ നടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അതുകൂടാതെ തന്നെ കൃഷി വിദഗ്ധരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കാറുണ്ട് പിന്നെ സീസൺ കൃഷി രീതികളാണു പലപ്പോഴും ചെയ്യാറുള്ളത് അതു പിന്നെ നമുക്കറിയാമല്ലോ അത് പിന്നെ ആരും പറഞ്ഞ് തരേണ്ട കാര്യമില്ല മഴക്കാലം തുടങ്ങുന്ന സമയത്ത് തൈകള് വച്ചുപിടിപ്പിക്കും